നമ്മുടെ പ്രദേശത്ത് സ്റ്റേഡിയങ്ങളെന്നു പറയാനൊന്നുമില്ല ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് അവിടെ കായിക രംഗത്ത് എന്ത്ച്ച്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കായിക മേഖലയിലുളള ആ ഒരു നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടു തന്നെ കായി നാടൻ ഗ്രാമീണ മേഖലയിൽ നിന്നും വലിയ വലിയ ഒരുപാട് പേരൊന്നും തന്നെ ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽപോലും ഗ്രൗണ്ടിൽ നല്ല ആൾക്കാർക്ക് പ്രാക്റ്റീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല അപ്പോൾ ഇതൊക്കെ വന്നാലാണ് എന്തീയ്യാ നല്ല രീതിയിൽ കായിക താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ അതായത് നമ്മുടെ ഇന്ത്യേൻ്റെ ശ്വാസം എന്നു പറയുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിലുള്ള ഡെവലപ്മെൻസ് എത്രത്തോളം ഉണ്ടാകുമോയെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇന്ത്യേൻ്റെ ഡവലപ്മെൻറ്റ് കായിക മേഖലയിൽ നമുക്കൊരു നല്ല ഒരൂ മികച്ച ടീം അല്ലെങ്കിൽ നല്ല മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഏറ്റവും താഴേ തട്ടിലുള്ള ഗ്രാമങ്ങളിലുള്ള ഗ്രൗണ്ടുകളിൽ നിന്നാണ് നമ്മളാദ്യം ഈ ഒരു തുടക്കം പകുതിയിൽ തുടക്കം കുറിക്കേണ്ടത് അതുപോലെ ഗ്രാമങ്ങളിലുള്ള ഗ്രൗണ്ടുകളിലും അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക അവിടെ കായിക താരങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പൊഴാണെ ഈ കായിക മേഖലയിൽ നമുക്കൊരു നല്ലൊരു പുരോഗമനം ഉണ്ടാകാൻ സാദ്ധ്യത ഉളളൂ അപ്പോൾ ഇതിനു വേണ്ട തീരുമാനങ്ങൾ നമ്മുടെ കായിക മേഖലയിലും കായിക വിദ്യാഭ്യാസത്തിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് നൽകുകയും അതിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യണം